ആറ് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഏഴ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒമ്പത് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പത്ത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട്